ഹായ് സുഖമാണോ ആ ഞാൻ കുറച്ചു പുറത്തായിരുന്നു അപ്പോൾ ഇവിടെ വരാനൊന്നും പറ്റിയില്ല ആ ഞാൻ കുറച്ചു അബ്രോഡിലായിരുന്നു ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഞാൻ ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ടു വരുന്നു ആ എല്ലാവർക്കും സുഖമാണോ ഏട്ടന് സുഖമല്ലേ ആ അതുകൊണ്ട് ഞാൻ അവിടെയായതു കൊണ്ടിവിടെ വന്നില്ല അതുകൊണ്ടു കുറച്ചു ഇല്ലാ നിങ്ങളുടെ ഇത്രയും നല്ല ഷോപ്പുളളപ്പോൾ ഞങ്ങൾ എന്തിനാണ് പുറത്തുപോവാ അതെ നിങ്ങൾ നല്ല സർവീസ് തരുന്നതുകൊണ്ട് നിങ്ങൾ നല്ല സർവീസ് തരുന്നതുകൊണ്ടു എനിക്കിവിടുന്നു പോകുവാനിഷ്ടമല്ല ആ അതെനിക്ക് നല്ല ഉപകാരമാവും താങ്ക്യൂ എപ്പോഴും എടുക്കുന്ന അതേ ലിസ്റ്റെടുത്തോളു സ്പെഷ്യലായിട്ടു ഇപ്പം എന്തേലും പുതിയ പ്രോഡക്റ്റ് വന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് ട്രഡീഷണൽ ഫുഡ്സ് ലൈക്ക് കണ്ണിവെള്ളരി അങ്ങനത്തെ ഒക്കെ ഓണത്തിനു വേണ്ട ഫുഡോക്കെ മതി ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ അതു ഞങ്ങൾക്ക് സദ്യയുണ്ടാക്കാൻ ആണ് അപ്പോൾ നല്ലതു തരണം ഓ താങ്ക്യൂ താങ്ക്യൂ

അതേ ഞാൻ റെകമ്മെന്റ് ചെയ്യാറുണ്ട് എനിക്ക് നല്ല അഭിപ്രായമാണ് നിങ്ങൾ നല്ല ഡിസ്കൗണ്ടും തരുന്നുണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തരുന്നതുകൊണ്ടു എനിക്ക് നിങ്ങളെ വിട്ടിട്ടു വേറെ കസ്റ്റ് വേറെ റീറ്റെയ്ൽ ഷോപ്പിലേക്കു പോകാൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനെല്ലാ പ്രാവശ്യം നിങ്ങളുടെ ഇവിടെ വരുന്നത് എല്ലാ പർച്ചേസും നിങ്ങളുടെ അടുത്തായി നടത്തുന്നത് ഇല്ലാ നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ പോലെ കണ്ടിന്യൂ ചെയ്യണമെന്നു തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇനി വേറെ കസ്റ്റമർ വന്നാലും എന്നെ പോലെത്തന്നെ അവരെയും നോക്കണം ഞാൻ റെക്കമെന്റ് ചെയ്തിട്ടുവരുന്ന ആൾകാരെയും അങ്ങനെ തന്നെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്